എട്ട് രണ്ട് ആയിരത്തിത്തൊള്ളായിരത്തി എൺപത്തിനാല് പതിനഞ്ച് ആറ് രണ്ടായിരത്തി പതിനൊന്ന് ഇരുപത്തിയേഴ് എട്ട് രണ്ടായിരത്തി പതിനേഴ് പത്ത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത് ഒന്ന് എട്ട് രണ്ടായിരത്തി പന്ത്രണ്ട്